ഈ ക്യാബ് ബുകിംഗ് സെൻട്രാണോ ആ ഓക്കെ ഓക്കെ എനിക്ക് അതായത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുവത്തിമൂന്നിന് ഒരു യാത്ര പോകേണ്ടതുണ്ട് അത് അതായതു ആ കോഴിക്കോടിലേക്കാണ് ഞങ്ങളിവിടെ വായനാട്ടിലാണ് അപ്പോൾ ഒരു ക്യാബ് ബുക്ക് ചെയ്യണമായിരുന്നു അതിനു വേണ്ടി വിളിച്ചതായിരുന്നു നിങ്ങളുടെ ക്യാബ് ഏതെങ്കിലും ഫ്രീയാണോ അങ്ങനെയാണെങ്കിൽ എനിക്കാദ്യം ഓർഡറു ചെയ്തു വെക്കാനായിരുന്നു ബുക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ ആ സമയം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടേൽ ഇത് ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് നേരത്തെ വിളിക്കുന്നത് ആ അതെ അതെ അതെ ആ അഡ്രസ്സ് പറയാം അഡ്രസ്സ് പറയാം ശാന്താ ഏറ്റുമാനൂർ ഹൗസ് ആ മാനന്തവാടിയാണേ ആ പിൻകോഡ് സിക്സ് സെവൻ സീറോ സിക്സ് ഫോർ ഫൈവ് ആണേ അങ്ങനെയാണേൽ നിങ്ങൾ അന്ന് രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ ഇവിടെത്തണോട്ടോ കൺഫേമാണേ ആ അഡ്വാൻസ് ചെയ്യാം അഡ്വാൻസ് ചെയ്യാം ആ ഓക്കെ ഓക്കെ താങ്ക് യൂ